ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കോളേജ്കള്ണ്ട് ഈ ഗെവൺമെന്റ് കോളേജ് പ്രൈവറ്റ് കോളേജ് കുറെ എഞ്ചിനീയറിംഗ് കോളേജ് അതേപോലെ കുറെ കോപ്പ്രെട്രീവ് കോളേജ് അതേപോലെ നമുക്ക് കുറെ കോളേജ്കള്ണ്ട് പിന്നെ നേസിംഗ് കോളേജ് അങ്ങനൊക്കെ പറഞ്ഞിട്ട് കുറെ കോളേജ്ണ്ട് അപ്പോഴോ കോളേജ്ന്നെക്കറട്ട് കോളേജ്ണ്ട് അവിടെന്ന് വെച്ചാൽ എറ്റവും കൂടുതൽ എല്ലാ പിള്ളേരും പഠിക്കാൻ പോന്നത് ഒന്നുമില്ലെങ്കിൽ ബിഎഡോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനാണ് എറ്റോം കൂടുതൽ പോകുന്നത് ഗെവൺമെന്റ് കോളേജിലും പിന്നെ അതേപോലെ കാളന് കോളേജു അങ്ങനത്തെ കോളേജിലൊക്കെ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന കോളേജിലാണ് പോകുന്നത് പിന്നെ സെൻ മേരീസ് കോളേജ് അങ്ങനെ കുറെ കോളേജ്ണ്ട് വിദ്യാഭ്യാസങ്ങൾ ഒക്കെ നല്ലതാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ കോളേജിനാണ് കോളേജ് പോകുന്നത് ഡിഗ്രിയോ എഞ്ചിനീയറിംഗും അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കാനാണ് പോകുന്നത് പിന്നെ ഇവിടെന്നൊക്കെ വെച്ച് നല്ല പോലെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടൊരു കുഴപ്പവും ഇല്ല അപ്പോൾ കുഴപ്പം ഒന്നുമില്ല ഇവിടെയൊക്കെ നല്ല പഠിപ്പിക്കുകയാണ് പിന്നെ അതേപോലെ ഗെവൺമെന്റ് കോളേജായാലും പ്രൈവറ്റ് കോളേജായാലും നല്ല പോലെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ കോളേജ്കൾ കുറെ ഉള്ളത് കാരണം പിന്നെ സീറ്റ് കിട്ടാണ്ട് ആരും പോകുന്നുമില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതേപോലെ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ട് അപ്പോൾ അത് കൊണ്ട് കോളേജെക്കെ നല്ലതാണ് പിന്നെ എല്ലാ കുട്ടികൾക്കും നല്ലൊരു കാര്യം കൂടിയാണ്